എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റെന്നു പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറാണ് സ്ക്രൂ ഡ്രൈവറെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഊരാൻ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാന് സ്ക്രൂ ഡ്രൈവർ പലതരം സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട് സ്റ്റാർ ഉണ്ട് പിന്നെ മൈനസ് ഉണ്ട് പിന്നെ സ്റ്റാറിനെക്കാട്ടി ചെറിയ തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഊരണമെന്നില്ല അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പം എല്ലാത്തിനും കൂടെ ഒരു ബോക്സ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വാങ്ങുവാണേൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും ഫാനിൻ്റെ എന്തെങ്കിലും ഊരാൻ ആണെങ്കിലും നമ്മുടെ വണ്ടിൻ്റെ എന്തെങ്കിലും ഊരാൻ ആണെങ്കിലും ഇപ്പം നമുക്കിപ്പോൾ കർട്ടൻ ടൈറ്റ് ആക്കാനാണെങ്കിൽ കർട്ടൻ്റെ ആ കമ്പി ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ സ്ക്രൂ ഡ്രൈവേഴ്സ് ആണ് ഉപയോഗിക്കുക അപ്പം നല്ല രീതിയിലുള്ള ഉപയോഗവും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട് പിന്നെ ഇതിൻ്റെ നെഗറ്റീവെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റാർ നല്ലൊരു നല്ലൊരു സ്ക്രൂ ഡ്രൈവർ വാങ്ങീട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ മൊനാ മൊന അതിൻ്റെ എന്താ പറയാ ഫുള്ള് റൗണ്ട് ആയി വരുമ്പോൾ നമുക്കത് ഊരാൻ പറ്റില്ല അപ്പോൾ നമ്മളത് തിരിച്ച് കഴിയുമ്പം ആ സ്ക്രൂ ആ സ്ക്രൂവിൻ്റെയും ത്രെഡ് പോവും ഇതിൻ്റെയും ത്രെഡ് പോവും അപ്പം നമ്മൾ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രൂ ഡ്രൈവേഴ്സ് നോക്കി തെരഞ്ഞെടുക്കുവാണെങ്കിൽ അപ്പോൾ വലിയ പ്രശ്നമുണ്ടാവില്ല അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ എന്തെയ്യാ മെഷീൻ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഊരാനും ടൈറ്റ് ആക്കാനും കുറച്ചും കൂടെ നല്ലതാണ് അപ്പം പെട്ടെന്ന് ഊരിവരും മറ്റേതാവുമ്പോൾ നമ്മൾ കൈകൊണ്ട് തിരിച്ച് നമ്മുടെ കൈയ്യിൻ്റെ കൈക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ വരും ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നെഗറ്റീവെന്നൊക്കെ പറഞ്ഞാൽ